ആ ഇപ്പോൾ വയനാട്ടിലെ ക്ലൈമറ്റൊക്കെ എങ്ങനെയാണ്

ആ ആ

ഈ ചുരം കേറുന്നേകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ രാവിലെ അ ആ അ അ ഓക്കെ അ അ ഓക്കെ

അ ആ

അ ആ ഇപ്പോൾ അവിടെ റൂം ബുക്കിംഗ് എങ്ങനെ അ അം ഓക്കെ അ ആ അ അ ഒ വയനാട്ടിൽ കാണാൻ നല്ല എവിടെയുള്ളത് അപ്പോൾ ഓക്കെ ചോദിക്കാം